പിന്നെ എല്ലാവരും ആഘോഷിക്കാനാണെങ്കിലും

പിന്നെ മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് എല്ലാവരും മലയാള ഭാഷയെ താഴ്ത്തിക്കെട്ടാനൊക്കെ നോക്കുന്നത് പണ്ടുള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കവിതകള് ആണെങ്കിൽ തന്നെ മലയാളത്തിൽ നല്ല രസമാണ് എന്താ പറയുക കേള്ക്കാന് ആണെങ്കിലും കുറച്ച് ദൃഢമായിട്ടുള്ള വാക്കുകള് ഒക്കെയാണ് മലയാളത്തില് ഉപയോഗിക്കുന്നത് പിന്നെ എല്ലാവരും ആദരിക്കാന് ആണെങ്കിലും നമ്മക്കിപ്പം ആദരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം മലയാളത്തിൽ പറയുമ്പം ആണ് ഭയങ്കര ഒരു അഭിമാനമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് അങ്ങനെയാണ് മലയാളഭാഷയിൽ ഉള്ള ഒരു ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക്